നമ്മൾ ഇപ്പം കാർഷിക മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാർഷിക മേഖലയിൽ നമ്മൾ ഒത്തിരി ഒരുപാട് കാശ് മുടക്കിയിട്ടും നമുക്ക് സത്യത്തിൽ പ്രയോജനമൊന്നും ഇല്ലാതെ ഇത് ഉപഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ നഷ്ടം സഹിച്ച് കൊണ്ടാണ് ഇത് നമ്മുടെ കയ്യിൽ നിന്നും പോകുന്നത് ഉപഭോക്താക്കൾക്ക് ഒരു വിധത്തിൽ അത് നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്ന കൃഷി സാധനങ്ങൾ ആകുമ്പം അതുകൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടാകും എന്നാലും നമുക്ക് അതിൻ്റെ നഷ്ടമാണിത് നമുക്ക് സാധനങ്ങൾ വിറ്റാലും അതിന് കാശ് കിട്ടാതെയും അതുപോലെ ഒത്തിരി ഒത്തിരി ഗവൺമെൻറ്റിൻ്റെ ജി എസ് എസ് പോലെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ കർഷകരിൽനിന്ന് പോലും ഓരോ രീതിയിലും പിടിച്ചെടുക്കുന്നുണ്ട് നമുക്ക് തെങ്ങിൻ നെല്ലിൻ്റെയൊക്കെയാണെങ്കിലും വില നഷ്ടപ്പെടുന്നു അത് സമയത്ത് കിട്ടാതെ വരുന്നു അങ്ങനെ കർഷകർ വിഷമിക്കുന്നു അങ്ങനെ കർഷകർക്ക് ബുദ്ധിമുട്ടാണ് ഉപഭോക്താക്കൾക്ക് അതുകൊണ്ട് ചിലപ്പം പ്രയോജനം ഉണ്ടാകുമായിരിക്കും അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് കർഷകരായ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടാണ് ഓരോ കൃഷിയും അല്ലെങ്കിൽ ഓരോ കാർഷിക മേഖലയും മുന്നോട്ട് പോകുന്നത് റബറിൻ്റെ കാര്യമാണെങ്കിലും അവർക്ക് വില കിട്ടുന്നില്ല അത് ഉപയോഗിക്കുന്നവർക്ക് പ്രയോജനപ്പെടുന്നുണ്ടായിരിക്കാം പക്ഷേ കർഷകൻ നഷ്ടത്തിലാണ് പോകുന്നത് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് പിന്നെ വെള്ളമൊക്കെയാണെങ്കിലും നമുക്ക് കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നില്ല കൃഷിയിടങ്ങളൊക്കെ വരണ്ട് കൃഷി നശിച്ച് ഇല്ല ഒന്നും നമുക്ക് പ്രയോജനം ഇല്ലാത്ത രീതിയിൽ വരെ പോകുന്നുണ്ട് അങ്ങനെ വാട്ടർ അതോറിറ്റിയൊക്കെ ആണെങ്കിലും ഒത്തിരി പ്രയോജനം നമുക്ക് ചെയ്യേണ്ട സമയത്ത് അവർ ചെയ്യാതെ ഒത്തിരി കർഷകനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഉപഭോക്താക്കളെ സംബന്ധിച്ച് അവർക്ക് ഇതൊന്നും അറിയേണ്ട അവർക്ക് കൈകളിൽ സാധനം എത്തുന്നു അവർ അത് ഉപയോഗിക്കുന്നു ഇത് എങ്ങനെ വരുന്നു അല്ലെങ്കിൽ ഇത് കർഷകൻ എന്തുമാത്രം ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ടെന്ന് അവർ അറിയുന്നില്ല അതുകൊണ്ട് ഉപഭോക്താക്കളുടെയും അതുപോലെത്തന്നെ വിപണിയിലുള്ളവരോടുമായിട്ട് കർഷകന് പൊരുത്തപ്പെട്ടു പോകുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് കർഷകർ ഒത്തിരി ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്